തീർച്ചയായും ഈ ഒരു മാറുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ പിടിപെട്ടവരാണ് നമ്മുടെ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളെന്നു പറയണത് ജനിക്കുന്ന കുട്ടി മുതൽ ഒരുപാട് അസുഖങ്ങളോടെയാണ് ജനിക്കുന്നത് എന്താ പറയുക മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച ഒരുപാട് ഭക്ഷണ ശീലങ്ങൾ മാറുന്നതിനനുസരിച്ച് പല രോഗങ്ങളും എത്രയോ സുലഭമായി നമ്മടെ ശരീരത്തെ ശരീരത്തിലൂടെ ശരീരത്തെ അത് അക്ര ആക്രമിക്കുകയാണ് എന്താ പറയുക നമ്മൾ ഇതുവരെ പേരു പോലും കേൾക്കാത്ത പല അസുഖങ്ങളാണ് നമ്മളെ ശരീ നമ്മളെ തേടി എത്തുന്നത് ക്യാൻസർ ഹൃദ്രോഗങ്ങളൊക്കെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ അധികം ആളുകളിലൊന്നും വരാറുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നാലഞ്ചു കൊല്ലങ്ങളായി ഇങ്ങനത്തൊരു രോഗങ്ങളെന്ന് പറയണത് നൂറിൽ അൻപത് പേർക്ക് വരുന്ന രോഗമാണ് ആ ഒരു രോഗം വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയാണ് മ് അതിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറയണത് അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുക എന്നു പറയണത് ഒരു വിധം കുറച്ച് ബുദ്ധിമുട്ടുളള കാര്യമാണ് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും അത് ആ ഒരു സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചികിത്സ എന്ന് പറയണത് അത് അത് പ്ര എല്ലാവർക്കും ലഭ്യമല്ല കാരണം എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകളിൽ ആണെങ്കിൽ അത്യാവശ്യം നല്ല തുക തന്നെ ഇതിന് ആവിശ്യമായി വരും അങ്ങനെ സാധാരണ കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് ഒരു അസുഖമായി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ അത് ആ അത് ആ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതല്ല എന്നാലും ചില സ്ഥലങ്ങളിൽ സൗജന്യമായി ഹൃദ്രോഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പല ചികിത്സകളും ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ ക്യാൻസറിനായിക്കോട്ടെ കീമോ അതുപോലെ ഫിസിയോ തെറാപ്പി ഒക്കെ ചെയ്തു കൊടുക്കണ കുറേ സ്ഥലങ്ങളുണ്ട് എന്നാലും അത് ഒരു വിധം എല്ലാ ആളുകളിലോട്ടും അത് എത്തിയിട്ടില്ലായെന്ന് വേണമെങ്കിൽ പറയാം മ് കാരണം എല്ലാവർക്കും സാമ്പത്തികമായി മുന്നോട്ട് നിക്കണമെന്നും മുന്നോട്ട് നിൽക്കുന്നവരായിരിക്കില്ല അവർക്കും സഹായം ആവശ്യമാണ് എന്നാൽ കുറേ കുറേ സംഘടനകൾ ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി സൗജന്യമായി പല ചികിത്സകളും നടക്കുന്നുണ്ട് എന്നാലും അത് എല്ലാവരിലോട്ടും എത്തിയിട്ടില്ല കുറച്ചും കൂടി അത് മെച്ചപ്പെടാനുണ്ട് പിന്നീട് നോക്ക് ആണെങ്കിൽ ചില ആശുപത്രികളിൽ ആയിക്കോട്ടെ പൈസക്ക് വേണ്ടി മാത്രം പണത്തിന് വേണ്ടി മാത്രം ചികിത്സ ചെയ്യുന്ന ആശുപതികളുമുണ്ട് ചികിത്സ വെറുമൊരു കച്ചവടമായി മാറുന്ന ആശുപതികളുണ്ട് എല്ലാവരും അങ്ങനെയല്ല ഒരു ജീവൻ നില നിർത്തണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ആത്മാർഥമായ ഒരു പരിശ്രമമാണ് എല്ലാ ആശുപത്രികളിലും ഉണ്ടാവേണ്ടത്